ധ്യാനത്തിന് ഇരിക്കാൻ സമയം ഇപ്പോൾ നമ്മൾ നോ എങ്ങനെയാണ് നമ്മൾ ഇരിക്കണ പോലെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിന് പറ്റുന്ന പോലെ ഇപ്പോൾ ചില സമയത്ത് അരമണിക്കൂറിരിക്കാറുണ്ട് ചില സമയത്ത് ഒരു മണിക്കൂർ ചില സമയത്ത് പെ പതിനഞ്ച് മിനിറ്റ് അതൊക്കെ ഓരോ അതൊക്കെ ആ ഒരു സമയത്തിന്റെ ഇതുണ്ടാവണതാണ് പിന്നെ നമുക്ക് പ്രാക്ടീസും കാര്യങ്ങളിലൂടെ അത് കൂട്ടിയെടുക്കാനും കാര്യങ്ങളും സാധിക്കും കുറെ നേരം ധ്യാനത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബോഡി ഫ്രഷാവും നമുക്ക് മൈൻഡ് നമുക്ക് എന്താണ് പറയുക മൈൻഡ് അത്രയും എനർജറ്റിക്കാവും ഫുൾ നമ്മൾ ആക്റ്റ് ബോഡി ആക്ടീവ് ആകും പെട്ടെന്ന് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് കിട്ടും അങ്ങനെ നമുക്ക് ധ്യാനം കൊണ്ട് കുറെ ഉപകാരങ്ങളുണ്ട് നമ്മൾ ആദ്യമായിട്ടൊരാൾ ധ്യാനത്തിന് ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നങ്ങനെ ധ്യാനത്തിൽ ഓടി പോയിരിക്കാൻ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും ധ്യാനം കറക്റ്റായിട്ട് സെറ്റാവണമെന്നില്ല അപ്പോൾ നമ്മളത് പഠിക്കാനുള്ള ക്ഷമ അല്ലെങ്കിൽ അത് ആ ഒരു രീതീയിൽ എത്തിച്ചേരാനുള്ള ഒരു ക്ഷമയാണ് നമുക്ക് ആദ്യം വേണ്ടത് നമ്മടെ മനസ്സിന് നമ്മളപ്പോൾ കുറേ നേരം ഇപ്പോൾ നമ്മളാദ്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ നമ്മളൊരു ഒരു പോയിന്റിലേക്ക് നമ്മുടെ നോട്ടം അതിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുറെ നേരം നമ്മളതിൽ തന്നെ ശ്രദ്ധിച്ചു ഇരിക്കണം അല്ലെങ്കിൽ നമ്മുടെ കണ്ണടച്ച് ഇപ്പോൾ നമ്മുടെ കണ്ണടച്ച് നമ്മുടെ മൈൻഡ് ഇരുന്നാലും നമ്മുടെ മൈൻഡ് നമ്മുടെ കയ്യിലായിരിക്കില്ല അത് വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ചിന്തിച്ച് ഇപ്പോൾ രാവിലെ നമ്മൾ എവിടെ പോയി അല്ലെങ്കിൽ നമ്മൾ കണ്ട ആൾക്കാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്ത പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ കുറെ പ്രാവശ്യം ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്കെത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം അത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് ചിലപ്പം രണ്ടുമാസം എടുക്കും ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് അറ്റയിൻ ചെയ്യാൻ പറ്റും അത് നമ്മുടെ കഴിവുപോലെ ഇരിക്കും നമുക്ക് എത്രത്തോളം നമ്മുടെ മൈൻഡിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് ഈ ധ്യാനം കൊണ്ട് നമുക്ക് കിട്ട് കിട്ടിയത് അത് നേടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളെ കോൺസെൻട്രേഷൻ അത്രയും പവർഫുൾ ആയിരിക്കും വേറെ ഏത് രീതിയിലും പൂവാണ്ട് നമ്മളെ കോൺസെൻട്രേഷൻ നമ്മുടെ നമ്മൾ എവിടെയാണോ നമ്മള് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റും മറ്റേതിപ്പോൾ ഈ ഇതൊന്നും ചെയ്യാത്ത ഒരാളാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കണമെന്ന് വിചാരിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും മൈൻഡ് വരും കളിക്കാനുള്ള മൈൻഡ് വരും അല്ലെങ്കിൽ ഉറങ്ങാനുള്ള മൈൻഡ് വരും അങ്ങനെ നമ്മളുടെ മൈൻഡ് മാറിക്കൊണ്ടേയിരിക്കും അതേ മറിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഈ ധ്യാനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞാൽ അഥവാ മൈൻഡ് ഡൈവേട്ടായി പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ധ്യാനം അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ധ്യാനത്തിലിരുന്നാൽ നമുക്കതിന്റെ ആ ഇത് നമുക്ക് റിസൾട്ട് പെട്ടെന്ന് ഇതാവാം പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡ് നമുക്ക് തിരിച്ച് നമ്മുടെ കോൺട്രോളിൽ തന്നെ വരും